എൻ്റെ മാതൃഭാഷ മലയാളമാണ് പിന്നെ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഭാഷ മലയാളമാണ് ഞാൻ ഒരു മലയാളി ആയത് കൊണ്ട് എനിക്ക് മലയാളം മലയാള ഭാഷ ഭയങ്കര ഇഷ്ടമാണ് നമ്മളുടെ നമ്മുടെ മാതൃഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണ് പിന്നെ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പം ഒരുപാട് ഞാൻ കുമാരനാശാനെ പറ്റിയിട്ടുള്ള കവിതയും പാട്ടുകളും കേട്ടിട്ടുണ്ട് അതിന്റെ ഒപ്പം തന്നെ പിന്നെ കുമാരനാശാൻ കുമാരനാശൻ എഴുതിയ വീണപ്പൂവ് എന്ന കവിത ഒക്കെ കുറേ കുറേ കുറേ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് കുറേ തല്ലും കൊണ്ടിട്ടുണ്ട് വായിക്കാനൊക്കെ അറിയാം പക്ഷേ കുറച്ച് കുറച്ചൊക്കെ അറിയുകയുള്ളു മലയാളം നമുക്ക് അങ്ങനെ നമ്മുടെ മാതൃഭാഷയാണെങ്കിലും വായിക്കാൻ നല്ല കട്ടിയുള്ള വാക്കുകളാണ് മലയാളത്തിൽ പിന്നെ വായിക്കാൻ ഒക്കെ അറിയാം എന്നാലും ഇച്ചിരി ബുദ്ധിമുട്ടാണ് മലയാളം പിന്നെ പറയാനായിട്ടും ബുദ്ധിമുട്ടാണ് വായിക്കാനായിട്ടും ബുദ്ധിമുട്ടാണ് എനിക്ക് എൻ്റെ മാതൃഭാഷാണ് ഇഷ്ടം പക്ഷേ ഞാൻ പറഞ്ഞത് പോലെ വായിക്കാനും പറയാനാണ് ഇച്ചിരി ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നമ്മൾ മഹാനായ കുമാരനാശാൻ എഴുതിയ കവിതയാണ് പരോധനം എന്ന കാവ്യം കുമാരനാശാൻ്റെ മിത്രവും രാജവർമ്മയുടെ നെയ്യാതനത്തെ കൊണ്ടാണ് കുമാരനാശാൻ്റെ ഈ കാവ്യം രചിച്ചത് ആധുനിക മലയാളഭാഷയുടെ പിതാവ് വിശേഷിപ്പിക്കുന്നത് പ്രാചീന കവിത്രയത്തിലെ തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന അദേഹത്തിൻ്റെ പേര് രാമാനുജൻ എന്നും കൃഷ്ണനെന്നും വിദഗ്തർ അഭിപ്രായപ്പെടാറുണ്ട് അതിന്റെ ഒപ്പം തന്നെ സ്കൂള ഞാൻ ഇഷ്ടം പോലെ പഠിച്ചിട്ടുണ്ട് പുള്ളീനെ ഒരുപാട് കേട്ടിട്ടുമുണ്ട് പക്ഷേ മലയാള ഭാഷ അപ്പോഴും ഇപ്പോഴും പാട് തന്നെ ആണത് ഇപ്പം തന്നെ കുറേ കഷ്ട്ടപ്പെട്ടാണ് പാ പറയുന്നത് പിന്നെ മലയാളം എല്ലാവരും വിചാരിക്കും സിമ്പിൾ ആണെന്ന് ഭയങ്കര പാടാണ് പക്ഷേ ഇംഗ്ലീഷിനേക്കാളും പാട് മലയാളം ഹിന്ദിനേക്കാളും പാട് പിന്നെ കവിമാരൊക്കെ രണ്ട് കുറച്ച് രണ്ട് മൂന്ന് കവിമാരെ ഒക്കെ അറിയാം നമ്മുടെ എന്താ പറയുക കുറുപ്പച്ചൻ പിന്നെ വേറെ കുമാരനാശാൻ പിന്നെ അങ്ങനെ അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കവിതകൾ കേട്ടിട്ടുണ്ട് ഇവരുടെ ഒക്കെ അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മൾ കുറേ കേട്ട് പഠിച്ചിട്ടുണ്ട് മലയാളം ടെക്സ്റ്റിൽ മലയാളം ടെക്സ്റ്റ് വൺ ടൂ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അതിനകത്ത് തന്നെ വായിച്ചെടുക്കാൻ എന്തൊരു പാടാണെന്ന് അറിയാമോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ മലയാളം വായിച്ചെടുക്കുക എന്നുള്ളത് നിസാര കാര്യമല്ല ഭയങ്കര പാടാണ്